ഇപ്പൊൾ വയനാട്ടില് മെയിനായിട്ടു വരുന്ന ഒരു കാര്യാണ് ടൂറിസം മേഖലാന്ന് പറയുമ്പോൾ ടൂറിസം ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണെങ്കിലും ഒക്കെ എല്ലാവരുംഓടി എത്തുന്ന ഒരു സ്ഥലമാണ് വയനാട് ഇപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്ലെയിസാണ് വയനാട് എന്ന് പറയുമ്പോൾ അവിടുത്തെ കുറുവ ആണെങ്കിലും കുറുവ ദ്വീപാണെങ്കിലും ബാണാസുര ഡാമ് പൂക്കോട് ലെയ്ക്ക് തുടങ്ങിയവയിലൊക്കെ ഒത്തിരി ആൾക്കാര് വന്ന് കണ്ട് പോന്നവര് ജില്ല വയനാട് ജില്ലയിലെ ഓരോ പ്രദേശങ്ങളാണിത് അവിടെ ആണെങ്കിൽ തന്നെ സമീപ പരിസരത്തുകളിൽ നമുക്ക് ആവശ്യത്തിനു വേണ്ട ഫുഡ് ഐറ്റംസാണെങ്കിലും നമുക്ക് അപ്പോൽ ഉപയോഗിക്കാനുള്ള ആവശ്യത്തിനുവേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്നു തന്നെ ഹാൻഡ് മെയ്ഡ് ചെയ്ത് ഓരോരുത്തരുത്തരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് നമുക്കവിടെ അവൈലബിൾ ആണ് എല്ലാവരും വേണ്ട വിധത്തില് തന്നെ നല്ല വൃത്തിയിലും വെടിപ്പിലും ഒക്കെ തന്നെയാണ് അതുണ്ടാക്കുന്നതും നമുക്കത് പ്രോവൈഡ് ചെയ്യുന്നതും എന്ന് പറയുന്നത് പിന്നെ വയനാട്ടിൽ മെയിനായിട്ടു വരുന്ന ഒരു തൊഴിലാണ് കൃഷി എന്നു പറയുന്നത് ഇപ്പോൾ നമുക്കറിയാം പണ്ടുകാലത്ത് ആദിവാസികള് പൊതുവായി ജീവിച്ചോണ്ടിരുന്ന ജില്ലയാണ് വയനാട് ജില്ല എന്നുപറയുന്നത് തുടർന്ന് നമ്മളൊക്കെ കയറ്റുമതി നമ്മളൊക്കെ കയറ്റുമതി ചെയ്ത് വന്ന ഒരു പ്രദേശമാണ് വയനാട് എന്ന് പറയുമ്പോൾ ആ വയനാട്ടിൽ മെയിനായിട്ടും കുറെ കാടുകളും കാര്യങ്ങളും ഒക്കെയാണെങ്കിൽപോലും ആ കാട്ടിൽ നിന്ന് തന്നെ കുറെ പച്ചമരുന്ന് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ഇപ്പൊൾ തലയിൽ തേക്കാനുള്ള എള്ള എണ്ണ കാച്ചാനാണെങ്കിലും മറ്റും ഒക്കെ വീടുകളിൽ തന്നെ ഇപ്പൊ ആദിവാസി മേഖലയിലുള്ളവരാണെങ്കിൽ കൂടെ അവര് കാട്ടിൽ നിന്നെടുത്തിട്ടുള്ള ഓരോ മരുന്നൊക്കെ നമുക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേപോലെതന്നെ വയനാട്ടിലെ കുരുമുളക് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കറിയാം പണ്ടുള്ള ബ്രിട്ടിഷ്കാര് നമ്മുടെ നാട്ടില് വന്നത് മെയിനായിട്ട് ഇവിടുത്തെ കുരുമുളക് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയായിരുന്നു കുരുമുളകാണേലും കാപ്പിയാണേലും തേയിലയാണേലും ഒക്കെ ഏറ്റവും കൂടുതല് കപ്പ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചേന ചേമ്പ് അതൊക്കെ വയനാട്ടില് നല്ലപോലെ ഉള്ളൊരു പ്രദേശം തന്നെയാണ് വയനാട് മറ്റ് പച്ചക്കറികളാണെങ്കിൽ തന്നെ ആണെങ്കിലും ഉപഭോക്താക്കൾക്ക് വേണ്ട വിധത്തില് നൽകുന്ന വേണ്ട വിധത്തില് ഒത്തിരി കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ വേണ്ടവിധത്തില് നൽകുന്ന ഒരു സ്ഥലമാണ് വയനാട് എൻഡോസൾഫാൻ പോലുള്ള ഒരിതൊന്നും വായനാട്ടിലെങ്ങനെ ഉപയോഗിക്കുന്നില്ല എന്ന് തന്നെ പറയാം പിന്നെ വയനാട്ടില് മെയിനായിട്ടു പറയാനുള്ള ചെറുകിട കടകളാണ് അത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവശ്യത്തിനു വേണ്ടി ടൗൺ വരെ പോകേണ്ട ഒരാവശ്യമൊന്നുമില്ലാതെ തന്നെ നമുക്ക് എന്തേലും പെട്ടന്നൊരു സഹായം തേടണമെങ്കിൽ അടുത്തുള്ള കടയിൽ പോയി നമുക്കൊരു സാധനം മേടിക്കാനും ഒക്കെ നല്ലൊരു ഇതാണ് ചെറുകിട കടകള് വീട്ടിൽ തന്നെയുള്ള കടകള് അതേപോലെതന്നെ വീട്ടിൽതന്നെ വീട്ടിൽ നിന്ന് തന്നെ കേയ്ക്കുകളുണ്ടാക്കി കൊടുക്കുക അതേപോലെതന്നെ നമ്മുടെ ബേത്ത്ഡേക്കൊക്കെയാണെങ്കിലും ആവശ്യത്തിലധികമുള്ള കേയ്ക്കുകളുണ്ടാക്കി കൊടുക്കുക അതേപോലെതന്നെ ക്രാഫ്റ്റുകള് ക്രാഫ്റ്റ് വർക്കൊക്കെ വീട്ടിൽനിന്നുതന്നെ ചെയ്തുകൊടുക്കുന്നരുണ്ട് വയനാട്ടില് ഒരുപാട് കാണാം അതേപോലെതന്നെ എന്തു ഫുഡ് ആയിക്കോട്ടെ വീട്ടിൽത്തന്നെ വീട്ടിലെ ഊണ് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലെയിസാണ് വയനാട് എന്ന് പറയുമ്പോൾ എല്ലാ ഇതിലും വെച്ച് തൊഴിൽ മേഖല വളരെ അധികം എന്താ പറയുക വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് വയനാട് എന്നു തന്നെ പറയാം